ഹലോ ആ ഹലോ ഹലോ ഇതാരായിരുന്നു ആ അതെയല്ലോ എന്തായിരുന്നു ആണോ ഓക്കെ ഓക്കെ എന്നും ഉണ്ടാവാറുണ്ടോ ആ ഫുഡിൻ്റെ എന്തെങ്കിലും ഫുഡ് കഴിക്കാറില്ലേ ഇപ്പോൾ

ആ പനിക്ക് മരുന്ന് വാങ്ങിയില്ലായിരുന്നോ ആ ഡോക്ടർ എന്താ പറഞ്ഞത് എന്നിട്ട് എവിടെയാണ് കാണിച്ചത് ആ നല്ലപോലെ റെസ്റ്റ് എടുക്ക് ഇപ്പം വൈറൽ ഫീവറിൻ്റെ ടൈമാണ് എല്ലാവർക്കും തന്നെ പനി വരുന്നുണ്ട് നല്ലപോലെ റെസ്റ്റ് എടുത്താലേ മാറത്തുള്ളൂ അതുകൊണ്ട് നല്ലപോലെ റെസ്റ്റ് എടുക്കുക അതുപോലെതന്നെ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കുക പിന്നെ മാക്സിമം തണുപ്പൊന്നും അടിക്കാണ്ട് ഇരിക്കുക കേട്ടോ പിന്നെ ആ ബ്ലഡ് പ്രഷർ നോക്കുന്നത് നല്ലതാണ് പിന്നെ ഇനിയും വല്ലാണ്ട് തല കറങ്ങുകയാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നല്ലയായിരിക്കും കേട്ടോ അപ്പം നാളെത്തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റുകയായിരുന്നെങ്കിൽ നല്ലതായിരിക്കും പിന്നെ വൈറ്റമിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോയെന്നൊക്കെ നോക്കുന്നത് ഇപ്പോഴത്ത ഈ ഒരു സിറ്റുവേഷൻ വച്ച് നോക്കുമ്പം നല്ലതായിരിക്കും പിന്നെ ഛർദി അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ മേല് വേദന അങ്ങനെ എന്തെങ്കിലും ആ ഇടവിട്ട് പനിക്കുന്നുണ്ടോ ഇപ്പോൾ

ആ ഓക്കെ വയറുവേദന അങ്ങനെ എന്തെങ്കിലും വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ പനിയും തലകറക്കവും മാത്രമല്ലേ ഉള്ളൂ ആ ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ വൈറൽ ഫീവറിൻ്റെ സമയമാണ് അപ്പോൾ അതിൻ്റെയാണ് പിന്നെ ഈ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാത്തതിൻ്റെയും റെസ്റ്റില്ലാത്തതിൻ്റെയും ഒക്കെയാണ് ഈ തലകറക്കങ്ങൾ ഒക്കെ വരുന്നത് അപ്പം മാക്സിമം റെസ്റ്റ് എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വേറെ പ്രശ്നം ഒന്നുമില്ലയെന്ന് നല്ലയായിരിക്കും ആ ഓക്കെ ആ ബുക്കിങ്ങുണ്ട് ഈ നമ്പറിൽ ഞാൻ ഒരു നമ്പറ് വാട്ട്സ്ആപ്പ് ചെയ്യാം അതിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി ആ ഓക്കെ